ആ എടാ പറ ട്രഡീഷണൽ ഹൗസ് ആണോ ആ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഉണ്ട്

പുറത്തുനിന്നാണോ ആ ഓക്കെ ഓ സെറ്റ് ആക്കിത്തരാം ഓക്കെ ഓക്കെ റെഡി ആക്കി തരാം ഇനി ഇപ്പം പിന്നെ എങ്ങനത്തെയാണ് കിട്ടുക നിനക്ക് ഇപ്പം എങ്ങനത്തെയാണ് വേണ്ടത് നമ്മള മറ്റേ എന്താണ് പറയുക മുള വെച്ചിട്ടുള്ള ഹട്ട് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും വേണോ ആ ഓക്കെ ഓക്കെ പണ്ടത്തെ ന മ്മുടെ നാലുകെട്ട് പോലത്തെ അല്ലേ അതായത് നടുമുറ്റം ഉള്ളത് ആ ഓക്കെ അഗ്രഹാരം ആ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അഗ്രഹാരങ്ങൾ അവിടെ നമുക്ക് സെ ഓ ഇത് ഇഷ്ടംപോലെ ഉണ്ട് എത്ര എണ്ണം വേണം ഓ അതൊക്കെ റെഡി ആക്കി തരാം ഞങ്ങൾ ഇപ്പം ഇവിടെയാണ് ഉള്ളത് അതായത് മാനന്തവാടി ആ ഭാഗത്താണ് ഉള്ളത് ആ അതെ അതെ അപ്പം എവിടെ പോയിക്കോ എന്ന് ഏയ് വലിയ വലിയ കാര്യങ്ങൾ ഒന്നും ഇല്ല കുഴപ്പം ഒന്നും ഇല്ലാത്ത ഏരിയയിൽ ഒക്കെയാണ് നമ്മൾ ചെയ്തുതരിക ഇവിടെ നമ്മള ആംബിയൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതായത് ഇപ്പം ഇവിടെ ദേ എന്നാൽ നമുക്ക് ഇവിടെത്തന്നെ പുഴയും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പം നല്ല ആംബിയൻസ് ആക്കിയിട്ട് സെറ്റ് ആക്കാം ആ എല്ലാം റെഡി ആക്കാം ആ ആ എല്ലാം റെഡി ആക്കും

ആ കാണാനൊക്കെ പറ്റും കുഴപ്പം ഒന്നും ഇല്ല

ഇല്ല അങ്ങനെ ഒന്നും വേണ്ട എടാ അങ്ങനെ ഒന്നും ഇല്ല നീ എന്തായാലും നാളെ ഒന്ന് വന്ന് നോക്ക് എന്നിട്ട് നമുക്ക് നിനക്ക് റെഡി ആകുവാണെങ്കിൽ ആ പറ്റുമെങ്കിൽ നീ നോക്കിയാൽ മതി എന്നാൽ നീ നാളെ വാ എന്നാൽ